വയനാട് ജില്ലയിലെ പ്രധാന സാമൂഹികക്ഷേമ വികസന പരിപാടികളും സംരംഭണങ്ങളുമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് അതായത് സ്ത്രീ ശക്തീകരണം അതുപോലെ സ്ത്രീകൾക്ക് തന്നെ കുടുംബശ്രീയിൽ അതായത് സ്വയംതൊഴിൽ പദ്ധതികളായിട്ടുള്ള കോഴി വളർത്തൽ ആട് വളർത്തൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അതായത് സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ ഭർത്താക്കന്മാർ ഇല്ലാത്തവർക്ക് ആണെങ്കിലും ജീവിക്കാൻ ഉള്ള ഒരുപാട് പിന്നെ സംരംഭങ്ങൾ ഗവെർൻമെൻറ്റ് തുടങ്ങീട്ടുണ്ട് അതുപോലെ തന്നെ വിധവകൾക്കുള്ള വിധവകൾക്ക് വീട് വേഗം പാസ്സാകുന്നുണ്ട് പിന്നെ അവർക്ക് അതുപോലെ എന്തെങ്കിലും ജോലി അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊണ്ടുക്കുന്നുണ്ട് സർക്കാർ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ അതായത് പാവങ്ങളായിട്ടുള്ള കുട്ടിക്ക് പിന്നെ അതേപോലെ ഈ എസ്ടി എസ്സി എസ്ടില് വിഭാഗത്തിൽ പെടുന്നവർക്ക് പെടുന്ന കുട്ടികൾക്ക് പിന്നെ സ്കോളർഷിപ്പുകൾ ഗ്രാൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് പഠനം ഒക്കെ ഫ്രീ ആണ് പിന്നെ ഇപ്പൊഴെന്ന് വെച്ചിട്ടുണ്ടേങ്കിൽ ദാരിദ്ര്യം ഒക്കെ വളരെ കുറവാണ് ഇപ്പം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടേൽ സർക്കാർ കിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ തരും അതുകൊണ്ട് തന്നെ നമുക്ക് പട്ടിണി ഇല്ലാണ്ട് ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം അവർ തരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരുപാട് അതേപോലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അങ്ങനത്തെ ഇത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംബശ്രീ മിഷൻ മഹിളാ ശക്തി കേന്ദ്രം അങ്ങനെ ഒരുപാടുണ്ട്